അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത് ഏഴ് എട്ട് രണ്ടായിരം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട്